ആ ഹാലോ സൂപ്പർ മാർക്ക് സൂപ്പർ മാർക്കറ്റാണോ ആ അതെ ഞാനാണ് ഇന്നലെ അവിടന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു ഇന്നലെ ഒരു വൈകിട്ട് അപ്പം അതിൽ കൂട്ടത്തിൽ അരി ഉണ്ടായിരുന്നു

ആ അതെ ആ പാക്ടായിരുന്നു ആ അത് പക്ഷേ ചെള്ള് അതൊത്തിരിയായി ഒന്ന് രണ്ട് ഒക്കെയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇതങ്ങനെ അല്ല ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് അതൊന്ന് റിട്ടേൺ ചെയ്യണമായിരുന്നു ബില്ല് ഞാൻ അറിയില്ല എനിക്ക് നോക്കണം എൻ്റെ കയ്യിൽ ഉള്ളതായിട്ട് എനിക്ക് ഓർമ വരുന്നില്ല ബില്ലിന് ആ എനിക്ക് ഏ ബില്ലിൻ്റെ എനിക്ക് ഓർക്കുന്നില്ല ഞാൻ എനിക്ക് അല്ലെങ്കിൽ നോക്കണം ബില്ലിൻ്റെ കാര്യം എനിക്കറിയില്ല നോക്കണം അതല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ബില്ല് ഇല്ലെങ്കിലിപ്പോൾ ആ ആ ആ ഹാ ആ ആ ഓ അത് അറിയില്ല കീറിയെന്നു തോന്നുന്നു ഇന്നലെ അത് കീറിയാണ് കട്ട് അത് കട്ട് ചെയ്തങ്ങനെ എടുക്കുവായിരുന്നു കീറിന്നു തോന്നണു അത് ആ പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഇത്രേം നല്ലൊരു സൂപ്പർ മാർകെറ്റീന്നൊക്കെ ഇത് മേടിച്ചിട്ട് ഇത്രേം മോശമായിട്ട് കിട്ടുകാന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കാരണം അത് പാ പത്തു കിലോ അരീടെ പാക്കറ്റാണ് നമ്മളത്രേം വെച്ചിരുന്നിട്ട് എത്രദിവസം അത് വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഞാനും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലലോ ഇങ്ങനെ ആയിരിക്കുവെന്ന് അത് കാരണം നമ്മളീ ബില്ലിൻ്റെ കാര്യമങ് ശ്രദ്ധിക്കാത്തത് കാരണം അങ്ങനെ നമുക്കും നേരത്തെയൊന്നും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല അത് കാരണം അങ്ങനെ ശ്രദ്ധിച്ചില്ല അല്ലാതെ ഒന്നും പറ്റത്തിലല്ലേ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെയൊരു ഇന്നലെയൊരു നാലര കഴിഞ്ഞായിരുന്നു

ഈ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു

ആ ആ ആ ഹാ ഞാൻ അതെ ഞാൻ സ്ഥിരമായിട്ട് വന്ന് അവിടുന്നാണ് സാധനങ്ങൾ എടുക്കാറുള്ളത്

ആ എൻ്റെ പേര് ഫോൺ നമ്പറ് പറഞ്ഞാൽ മതിയോ ആ ഫോ ജ്യോതിന്നാണ് പേര് ആ ഫോൺ നമ്പരൂടെ പറയാം ആ ജ്യോതി ജി നായർന്നാണ്

അഡ്രെസ്സ് നീലാഞ്ജനം മേലുകര കോഴഞ്ചേരി ഓക്കേ ആ ആ ആ ഓക്കെ ഓക്കെ ശരിയെന്നാൽ ആ ആ ശരി ഓക്കെ